രാസപദാര്ത്ഥമുള്ള കീടനാശിനികളുടെ ഉപയോഗം അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചില മനുഷ്യർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല അവർക്ക് വിദ്യാഭ്യാസമുള്ളവർക്കും മറ്റുള്ളവർക്കൊക്കെ ഇതിന്റെ ഉപയോഗം എന്താന്നും ഇതിൻ്റെ ഉപയോഗിച്ചാലുള്ള അന്റെ ബാ അതിന്റെ ബാഹ്യ അതിനെ അതായത് അത് ഉപയോഗിച്ചതിന് ശേഷം ഇതിന് ഉള്ള റിയാക്ഷന് എന്താന്ന് ഒക്കെ ചില മനുഷ്യര്ക്ക് അറിയാന് പറ്റും ചിലര്ക്ക് ഒട്ടും ഇതൊട്ടും ഇതിനെ കുറിച്ചിട്ടറിയത്തും ഇല്ല പക്ഷേ രാസപദാര്ത്ഥം ഈ കീടനാശിനികൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പുല്ല് കരിക്കൽ അല്ലെങ്കിൽ അതൊരു പിന്നെ ഇപ്പം ഭൂമിയിൽ ഉല്പാദനം കൂടുന്നെന് വേണ്ടിയാണ് ഫലം കൂടുതൽ അതായത് കായ്ഫലം കൂടുന്നതിന് വേണ്ടിയുള്ള കീടനാശിനി പദാര്ത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഒരു പരിധിവരെ നല്ലതും ഒരു പരിധി അത് പരിധി വ അത് നല്ലതുമാണ് പക്ഷേ അതിനേക്കാട്ടി ഉപരിയായിട്ട് സാധാരണ ജനങ്ങളും സാധാരണ മനുഷ്യർക്കും ചില ചില സന്ദര്ഭങ്ങളില് അലര്ജി പോലുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ എന്റെ എന്റെ ജീവിതത്തില് ഞാനിത് ഒരു ഒരു സ്ഥലത്ത് കീടനാശിനി അടിച്ചു കഴിഞ്ഞപ്പോള് ഡോസേജ് കൂടിപ്പോയി അകത്ത് ഈ മണ്ണിര എന്ന് പറയുന്ന ഒരു സാധനം ഭൂമിക്കടിയില് കിടക്കുന്ന ഒരു സാധനമാണ് അത് നൊളച്ച് മേളില് വരുന്ന ഒരു സാഹചര്യവും ഇത് ആ പറമ്പില് ഉണ്ടായിരുന്നു മണ്ണിര മേളില് വരികയും ചെയ്തിട്ടുണ്ട് അതായത് ജീവരക്ഷാര്ത്ഥം അത് പൊള്ളി വന്ന് പുറത്ത് വന്ന് ചത്തു പോവുവാണ് ചെയ്തത് മണ്ണിര കൊണ്ട് രാസ പദാർത്ഥം പദാര്ത്ഥം കീടനാശിനി ഉപയോഗിച്ചത് കൊണ്ടാണ് മണ്ണിര അങ്ങനെ ചാകാന് വന്ന എന്ന് പറഞ്ഞണക്ക് പലതും പല ദോഷം പല ദോഷങ്ങളും കീടനാശിനികള് കൊണ്ട് ഉണ്ടാവുന്നുണ്ട്